ജോസഫ് എ ജെ താങ്കളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊന്ന് വിവരിക്കാമോ ഞാൻ എൽ ഐ സിയിൽ ബ്രാഞ്ച് ഡെവലപ്പ്മെൻറ്റ് ഓഫീസറായിട്ടാണ് ആദ്യം ജോലി കയറിയത് അതിനു ശേഷം ഞാൻ പടി പടിയായി പ്രമോഷൻ മേടിച്ച് അസിസ്റ്റൻറ്റ് മാനേജരായി ബ്രാഞ്ച് മാനേജറായി സീനിയർ ബ്രാഞ്ച് മാനേജറായി അങ്ങനെ റിട്ടയർ ചെയ്ത് പിന്നെ പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ പല മേഖലകളിലും തിരുവനന്തപുരം ഭാഗം കോട്ടയം ഭാഗം അതുപോലെ തന്നെ പിന്നെ വയനാട് പിന്നെ മലബാർ ഭാഗം കോഴിക്കോട് കണ്ണൂർ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ അറുപതാമത്തെ വയസ്സിൽ എൽ ഐ സിയിൽ നിന്ന് സീനിയർ ബ്രാഞ്ച് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു